മൊബൈൽ ഫോണ് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇപ്പം കുഞ്ഞു കുട്ടികൾ മുതൽ മൊബൈൽ ഫോണിന് അഡിക്ടായി വരികയാണ് ഒരുപാട് ടൈമ് നമുക്ക് വെയിസ്റ്റാണ് കുഞ്ഞു കുട്ടികളാണെങ്കിൽ എന്താ പറയുക പുറത്തിറങ്ങി കളിക്കേണ്ട സമയങ്ങളിൽ അവർ മൊബൈൽ ഫോണിലിരിക്കുകയാണ് അപ്പം ഒരുപാട് അവർക്കു എന്താ പറയുക മെൻ്റലി വർക്ക് ചെയ്യാനുള്ള കഴിവ് കുറയുകയാണ് ഒരുപാട് ഐ ക്യു കുറയുന്നുണ്ട് അതുപോലെത്തന്നെ അവർക്ക് ലോ ക്വാളിറ്റി വരുന്നുണ്ട് അവർ ആക്റ്റീവ് അല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അതുപോലെത്തന്നെ വലിയവരായിക്കോട്ടെ അതിൽ ഒരുപാട് ക്രൈംസ് നടത്തുന്നുണ്ട് സൈബർ ക്രൈംസ് പോലുള്ള ക്രൈംസ് നടക്കുന്നുണ്ട് ഒരുപാടുപേരെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പേയ്ടിഎം പോലുള്ള ആപ്പുകൾ വഴി ഒരുപാട് പണം തട്ടിക്കുന്നുണ്ട് ചെറിയൊരു ക്യു ആർ കോഡ് വഴി മറ്റുള്ളവരുടെ ചാറ്റും പേഴ്സണൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഒരാളുടെ ജീവിതശൈലി മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിന് കഴിയുന്നുണ്ടെന്നു വേണം പറയാൻ നമ്മുടെ ടൈമ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ടൈം നമ്മൾ വെറുതെ ഫോണിലിരുന്ന് ടൈമ് കളയുന്നുണ്ട് എൻ്റർടൈൻമെൻ്റ് മാത്രമായി ഒതുങ്ങിപ്പോകുന്നുണ്ട് മൊബൈൽ ഫോണ് ഉപയോഗിക്കുന്നതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്താ പറയുക മനുഷ്യ മനുഷ്യൻ്റെ മാറ്റങ്ങൾക്ക് കാരണമായി വരുന്നുണ്ട്